ഹലോ ഗ്രേസി ഡോക്ടറാണൊ അതെയാ എനിക്ക് ഭയങ്കര തലവേദനയും പനിയായിട്ട് നല്ല വണ്ണം വയ്യ ക്ഷീണം എന്താന്നറിയില്ല ഇങ്ങ തല ഭയങ്കര നിക്കോം ചെയ്യുന്നില്ല ഡോക്ടർ ഇന്ന് ഉണ്ടോ ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് കിട്ടുമോ ഡോക്ടറെ നിങ്ങളത് അതെ അതെ ഞാൻ ഞാൻ ശാസ്ത്രനഗർ നിന്നാണ് വിളിക്കുന്നത് ആ ആ അതെ ആ വീട്ടിലേക്ക് അതെയോ വീട്ടിലേക്ക് വന്നാൽ അതെ വീട്ടിലേക്ക് വന്നെങ്കിൽ ടെസ്റ്റിംഗ് എല്ലാം ഉണ്ടാവുമോ ഡോക്ടറെ ടെസ്റ്റ് എല്ലാം ഉണ്ടാവുമോ

ആ ആ ആ അതെ

ആ അതെയതെ ആ ആഹാ ആ ഞാൻ ബെര്ന്ന് ഡോക്ടർ ആ ഞാൻ ബെര്ന്ന് ഞാൻ ഇപ്പോൾ ദേ ആടന്നെ തൊട്ടടുത്തല്ലേ വരുന്ന് ഡോക്ടറെ വീട്ടിലേക്ക് ആ അത് വിധു ഡോക്ടറെ ഓപ്പോസിറ്റ് അല്ലെ വിധു വിധു ഡോക്ടറെ ഓപ്പോസിറ്റ് അല്ലെ അതെല്ലേ ആഹാ ആഹാ അതെല്ലേ ആ ഡോക്ടർ വീട്ടിൽ നോക്കുന്നില്ല എന്നു കസ്റ്റ ഒരു പേഷ്യൻറ്റ് പറയുന്നുണ്ട് വീട്ടിൽ നോക്കുന്നില്ല അങ്ങനിങ്ങനെ എന്നു വയറുവേദന ആ അതെ അതെ അതെ അതെ അതെ അതെ ആഹാഹാ അത് തന്നെ ഡോക്ടർ വയറുവേദന അത്രക്കും സഹിക്കാൻ നല്ല വണ്ണം അല്ലെങ്കിൽ അത്രമേലും ആവുന്നില്ല ആ അതെല്ലേ അതെ അല്ലേ ആ ഞാൻ വരുന്നു ഡോക്ടറെ ഒരു മിനിട്ട് ഞാൻ ഇപ്പം എത്തി ഡോക്ടറെ വാ ആ ഒരു മിനിറ്റ് ഒരു മിനിട്ടിൽ ബേ എത്ത് ബേ എത്ത് ആ ഒരു മിനിറ്റ് ആയില്ലേ ഡോക്ടർ വരുന്നുണ്ട് കഴിഞ്ഞ അതെയാ ഭർത്താവ് ഏടെപ്പാ ഭർത്താവെ ഏടോ പുറമെ പോയിട്ടുണ്ട് വീട്ടിലാരുമില്ല കുട്ടികൾ മാത്രമേയുള്ളൂ കുട്ടികളും ഞാനും മാത്രമേയുള്ളൂ അതെ ഇപ്പം എന്താണ് ചെയ്യുന്നത് അറിയുന്നില്ല ആ ശാസ്ത്രനഗർ അടുത്ത് തന്നെ പക്ഷെ എനിക്കൊന്നും ഒട്ടും കഴിയുന്നില്ല അല്ലെങ്കിൽ അത്രക്കും നടക്കുംന്നാ ഭയങ്കര ബോഡിയെല്ലാം വീക്ക് വീക്കാകുന്നുണ്ട് ആ അതെയാ ആ അതെയോ ആ മോളെ ബിലിച്ച്നൊക്കട്ട് വരുന്നാന്നുള്ത് ആ മേലെ കൈ പിടിച്ചിട്ട് വരുന്നുണ്ട് നോക്കട്ടെ ആ ആ ശരി ഡോക്ടറെ വരുന്ന് ഓ ശരി ഓക്കെ